ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ആദ്യമൊക്കെ മലയാളമായിരുന്നു കാരണം എനിക്ക് മലയാളം പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് ഇംഗ്ലീഷ് ആയി മാറി കാരണം ഇംഗ്ലീഷ് എനിക്ക് സംസാരിക്കുവാനും എഴുതുവാനും അത്യാവശ്യം അറിയുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്ലാസ്സിലത്യാവശ്യം നന്നായി ചെയ്യുമായിരുന്നു അപ്പോൾ എനിക്കത് പഠിക്കാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് ഞാൻ കുറേ കാലം ഇംഗ്ലീഷായിരുന്നു എൻ്റെ ഫേവറേറ്റ് സബ്ജെക്ട് എന്ന് പറയുന്നത് അതുകഴിഞ്ഞ് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഞാൻ ഹൈ സ്കൂൾ ഹൈ സ്കൂൾ ലെവലെത്തിയപ്പോൾ അവിടെ എനിക്ക് എട്ടാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിക്കുവാനായിട്ടൊരു ഹൃദ്യയെന്ന് പറഞ്ഞ മിസ്സ് വന്നു മിസ്സെന്ന് പറയുമ്പോൾ അടിപൊളിയാണ് നല്ലത് പോലെ പഠിപ്പിക്കുകയും എല്ലാവരുമായിട്ടും നല്ല അടിപൊളിയായിട്ട് കമ്പനിയൊക്കെ ആകുന്ന മിസ്സായിരുന്നു അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഞാൻ മാത്സിൽ ആദ്യമൊക്കെ ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ മിസ്സ് എന്നെ ചീത്ത പറയുയുകയും ഒന്നും ചെയ്യാണ്ട് എന്നും ചിലപ്പോൾ എനിക്ക് ബേസ് ലെവൽ പോലും ഇല്ലാണ്ടിരുന്ന സബ്ജക്റ്റായിരുന്നു മാത്സ് അപ്പോൾ എനിക്ക് അതിൻ്റെ ബേസ് തൊട്ട് എല്ലാം എനിക്ക് പറഞ്ഞ് തന്നത് ഈ ഹൃദ്യയെന്ന് പറഞ്ഞ മിസ്സാണ് അപ്പോൾ എനിക്ക് അത്രത്തോളം പിന്നെപ്പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സബ്ജെക്ട് എന്ന് പറയുന്നത് മാത്സായി തുടങ്ങി കാരണം എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി പിന്നെപ്പിന്നെ ഓരോ പയ്യെ അധികം മാർക്കൊന്നും ഇല്ലെങ്കിലും പയ്യെ പയ്യെ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടി തുടങ്ങി പിന്നെ ആണെങ്കിൽ എനിക്ക് ഞാൻ ബയോ സയൻസായിരുന്നു പ്ലസ് വൺ പ്ലസ് ടൂവിലെടുത്തത് അപ്പോ ഴാണെങ്കിലും എനിക്ക് മാത്സ് പഠിക്കാൻ കൂടുതലിഷ്ടമായിരുന്നു വേറെ എന്തിന് മാർക്ക് പോയാലും എനിക്ക് മാത്സിന് പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മാത്സിനാണെങ്കിൽ എ പ്ലസ് പോയിട്ട് ഒരു മാർക്കിന് രണ്ട് മാർക്കിന് എ പ്ലസ് പോയിട്ട് എ ആണ് കിട്ടിക്കൊണ്ടിരുന്നത് പ്ലസ് ടുല് കിട്ടിയത് എന്നാലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൂടുതലും പറയുമ്പോൾ ഞാൻ പറയുന്നത് മാത്സ് തന്നെയാണ്